ഞങ്ങളുടെ സിറ്റിയിലെ ഇപ്പോള് പുതുതായി കടന്നുവരുന്ന വിഴിഞ്ഞം പ്രൊജക്റ്റ് എത്രയോ ജനങ്ങൾക്ക് ജോലിക്കായി സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ് ഇപ്പോള് വിഴിഞ്ഞത്ത് കടന്നുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടെക്നോപാർക്കിലെ അനേക സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങള് ജോലിക്കായി ഇവിടെ കടന്നുവരുന്നു അതുമൂലം ഇവിടെ ഈ തിരുവനന്തപുരം സിറ്റിയില്ത്തന്നെ അതോടെ നല്ല മാറ്റങ്ങളും സംഭവിക്കുന്നു അതുപോലെ തന്നെ മെട്രോ അതിനുവേണ്ടിയിട്ട് ഒരു കടന്നുവരുമ്പോളും ജനങ്ങൾക്ക് ജോലിയുടെ സാധ്യത കുടുതലായിട്ട് കടന്നുവരുന്നൊരു മേഖലയാണിത് പിന്നെ അനേകം ഈ ലുലു മാള് പോലെയുള്ള മാളുകള് കടന്നുവരുന്നു വ്യവസായമല്ലെങ്കിലും ബിസിനസ്സ്പരമായി കടന്നിരുന്ന ഓരോ പ്രോജക്റ്റുകളും ജനങ്ങൾക്ക് അത് ന നന്മയായി അനുഗ്രഹമായി മാറുന്ന പ്രോജക്റ്റുകളാണ് അതുകൊണ്ട് അനേകം ജനങ്ങളെ ഈ തിരുവനന്തപുരം സിറ്റിയിലേക്ക് ആകർഷിക്കുകയും ജോലി സാധ്യതയുള്ള സ്ഥലമായി മാറുവാൻ സാധിക്കുന്നു ഇനീ അടുത്തത് തന്നെ പുതിയ ടെക്നോ സിറ്റി എന്നുപറഞ്ഞ അടുത്ത പ്രോജക്റ്റ് ഇതാ കടന്നുവന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അനേകം പ്രോജറ്റുകള് ഇപ്പോള് തിരുവനന്തപുരത്ത് കടന്നു വന്നിരിക്കുകയാണ്